നമസ്കാരം ഞാൻ ശ്രീദർശനയാണ് എൻ്റെ നിലവിലെ പ്ലാനിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് മൊബൈൽ ഓപ്പറേറ്ററിൽ നിന്ന് എനിക്കൊരു സന്ദേശം ലഭിച്ചിരുന്നു അപ്പോള് അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുമായിട്ടു ബന്ധപ്പെടുന്നത് എന്നാൽ അവ സ്വീകരിക്കുന്നതിനു മുമ്പായിട്ട് ഇതിൻ്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ അവലോകനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോള് ഈ പ്ലാനിൻ്റെ കാലാവധി എത്രയാണെന്നൊന്നു പറയാമോ അതുപോലെ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന പ്ലാനാണ് മുൻപത്തെ പ്ലാനിനെ അപേക്ഷിച്ച് ഈ പ്ലാനിൻ്റെ മാറ്റങ്ങളൊന്നു വിശദീകരിക്കുമോ കൂടുതലായിട്ട് മൊബൈൽ ഡാറ്റ കൂടുമോ അതോ എന്തെങ്കിലും പൈസ ചെലവുണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെനിക്കു വരുമോ ഇതിൽ നിന്ന് ഇതു ഞാൻ സ്വീകരിക്കുന്നതിൽനിന്ന് മറ്റു പ്ലാനുകളെ അപേക്ഷിച്ച് എനിക്കു കിട്ടുന്ന മേൻമകൾ എന്തൊക്കെയാണ് ഇതിനു മറ്റു പ്ലാനുകളെ അപേക്ഷിച്ചു ഗുണനിലവാരമുണ്ടോ എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോള് താങ്കൾക്കിതൊന്ന് എല്ലാം ഒന്നു പറഞ്ഞുതരാൻ പറ്റുമോ എനിക്കിത് അറിഞ്ഞുകഴിഞ്ഞിട്ട് ഞാനിതു സ്വീകരിക്കണമോ വേണ്ടയോ എന്നു തീരുമാനിക്കാം